ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എണ്ണൂറ് ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്